നേരിട്ട് ഏതെങ്കിലും പാട്ടുകാരനെ കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാട്ടുകാരനെ ഞാൻ നേരിട്ട് ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് ഒരുപാട് പാട്ട് അതായത് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ പാട്ടു ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് പാട്ട് അതായത് പാട്ടുകാരനെയും കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് പാട്ടുകാരന്മാരെയൊക്കെ കാണാൻ ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരാളാണ് ഞാന് മെയിനായിട്ട് എനിക്ക് ഇപ്പോൾ ചിത്ര ചേച്ചി പിന്നെ യേശുദാസ് അങ്ങനെ അതായത് പിന്നെന്നു വച്ചാൽ എനിക്ക് വിധുപ്രതാപിനെ ഭയങ്കര ഇഷ്ടമാണ് വിധുപ്രതാവിൻ്റെ സുഖമാണീ സുഖമാണീ നിലാവ് എന്ത് സുഖമാണീ ഈ കാറ്റ് അരികിൽ നീ വരുമ്പോൾ എന്ത് രസമാണീ സന്ധ്യ ഈ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വിധുപ്രതാപിൻ്റെ ഈ പാട്ട് കേട്ടതിൽ പിന്നെ ഞാൻ ഭയങ്കര അഡിക്റ്റ് ആണ് വിധുപ്രതാപിനെയും ജ്യോത്സനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മഴവിൽ മനോരമയിൽ ഒരു എന്താ സ്റ്റാർ സിംഗർ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട് റിമി ടോമി വിധുപ്രതാപ് പിന്നെ ജ്യോത്സനയൊക്കെ ഉള്ള അപ്പം ഞാനത് എപ്പഴും കാണുമായിരുന്നു എനിക്ക് വിധുപ്രതാപിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട അതായത് പാട്ടുപാടുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിധുപ്രതാപിനെ